ദൈവവിഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നവരാത്രി ഉത്സവം പ്രമാണിച്ച് എൻ്റെ മകൾ എന്നെ ദേവിയായി ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ വ്രതം പിടിച്ചാണ് ഞാനും എൻ്റെ മകളും അതിനായി തയ്യാറെടുത്തത് അതിന് വേണ്ടിയിട്ടുള്ള ചുവന്ന പട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ ആഭരണങ്ങൾ എല്ലാം വാടകയ്ക്ക് എടുത്ത് അതിൻ്റെ ശൂലവും പിന്നെ തലയിൽ വയ്ക്കാനുള്ള കിരീടം എൻ്റെ മകൾ തന്നെ വീട്ടിൽ ഇരുന്ന് ഒരാഴ്ച സമയമെടുത്ത് അത് ഉണ്ടാക്കി അങ്ങനെയാണ് എന്നെ ഒരു ദേവിയായി ഒരുക്കിയത്